ഓൺലൈനിൽ നിന്നായിട്ടുള്ള തട്ടിപ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല ഇനി വരികയാണെങ്കിൽ തന്നെ നമുക്ക് ആ നമ്പർ നമ്മടെ ബാങ്കിൻ്റെ ബാങ്ക്രീത്തിലാണ് വന്നച്ച ബാങ്കിൻ്റെ ആൾക്കാർക്ക് അവരത് കൈകാര്യം ചെയ്തോളും അതായത് ഇപ്പൊ ഇന്ന നമ്പറാ വന്നേച്ചാ അവർക്കത് റിപ്പോട്ടേയ്ത് കൊടുത്തഴിഞ്ഞ അവര് അയിനുള്ള മുന്ന് നടപടിയെടുക്കുന്നതാണ് കൂടാതെ ഇത് ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ അവര് തന്നെ ഓരോരോ കാര്യങ്ങള് പറയാറുണ്ട് അനാവശ്യമായുള്ള നമ്പറെന്ന് വരുമ്പോൾ ഒട്ടിപിന്നും പറഞ്ഞ് കൊടുക്കരുതെന്ന് ബാങ്കിലെ അക്കൗണ്ടിൻ്റെ ഏരിയകളൊന്നും പറഞ്ഞ് കൊടുക്കരുതെന്ന് അവരുതന്നെ നമ്മളുടെയടുത്ത് പറഞ്ഞുതരാറുണ്ട് ആ രീതികള് നമ്മള് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കപ്പെടാൻ പറ്റും പോരാത്തേന് നമ്മുടെ മറ്റ് ചില കാര്യങ്ങള് പറഞ്ഞിട്ട് പറയുക പൈസ തരാം ലോണ് തരാന്ന് പറഞ്ഞ ഓരോ കോള് വരുന്നുണ്ടെങ്കിൽ അതിന്ന് നമ്മള് മാറിനിക്കേണ്ടതാണ് അത് നമ്മളതൊന്നും അവരെ അവ അവഗണിക്കേണ്ടതാണ് അവരെന്നും നമുക്കയ ഉത്തരമൊന്നും പറഞ്ഞുകൊടുക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കി നമ്മുടെ കയ്യിലുള്ള അറിവുകളും ഡാറ്റകളും പൈസയുമെല്ലാം അവർക്ക് തട്ടിയെടുക്കാൻ സു സുലഭമായി പറ്റും